ഹലോ ആ ആരായിരുന്നു ആ അതെ ആ എന്തായിരുന്നു എന്ത് പറ്റി ആ ഞങ്ങൾ ട്വൻ്റി ഫോർ ഇൻ റ്റു സെവൻ ഞങ്ങൾ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ വീട് എവിടെ ആയിട്ട് വരും കിടങ്ങള ഞാൻ ഓക്കെ നിങ്ങളുടെ സൗകര്യം പറഞ്ഞോ ഞങ്ങൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് നിങ്ങളുടെ സൗകര്യം പറ ഞങ്ങൾ ആ സമയത്ത് അവിടെ അതെ വന്നോളാം ആ നാളെ ഒരു മോണിംഗ് വരാം എപ്പം പൈപ്പിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്താണ് എന്നൊന്ന് പറയാമോ ഓ ആ ആ ഓക്കെ ഇപ്പം എന്തായി വെള്ളമടിച്ചിട്ട് ഒട്ടും പണി അറിയാമോ ആ അറിയാം അതൊന്നും നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ സർവീസിനെ വിശ്വസിക്കുക ഞങ്ങൾക്ക് പണിയൊക്കെ അറിയാം ഞങ്ങളുടെ ഇത് ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ് വരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസെക്കെ ഉണ്ട് പേടിക്കേണ്ട മാം ഞങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ആ ഓക്കെ മാം ചോദിക്കട്ടെ ഇത് ഇപ്പോൾ വെള്ളം ഒട്ടും മോട്ടറിലാണ് പമ്പ് ചെയ്യിക്കാനെ പറ്റുന്നില്ല എന്നാണോ അതോ പമ്പ് ചെയ്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഇപ്പം വീടിൻ്റെ എല്ലാ പൈപ്പിലും ഇങ്ങനെയൊക്കെ തന്നെ ആണോ ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി മാം ഓക്കെ രാധാകൃഷ്ണൻ അ ഓക്കെ മാമിൻ്റെ പേര് എന്തായിരുന്നു ആ ഓക്കേ ശരി ഞങ്ങൾ വന്നേക്കാം ഞങ്ങൾ ഒരു നാല് പേര് കാണും ആ ഓക്ക്